നിങ്ങൾക്കറിയാവുന്ന ചെറിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ എന്തൊക്കെയാ രസകരമായ വസ്തു ഇപ്പം നമ്മൾ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കൂട്ടായ സംരംഭങ്ങൾ തുടങ്ങുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളായിട്ട് ചെറിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാം ചിലവർ വീട്ടിൽ തന്നെ എന്താ ഇപ്പോഴെ രീതിക്കാണെങ്കിൽ എല്ലാവരും ഫോട്ടോ ഫ്രെയിമുകളും അങ്ങനെയൊക്കെ വീടുകളിൽ ചെയ്തെല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട് ലെറ്ററ് ലെറ്ററിൻ്റെ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെത്തന്നെ ബർത്ത്ഡേക്കായാലും ആനുവേഴ്സറി വരുമ്പോഴായാലും ഗിഫ്റ്റുകളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഒരു ഒരു ഒരാൾ തുടങ്ങുന്ന ചെറിയ സംരംഭങ്ങളാണ് അതിനകത്തുനിന്ന് ഒരുപാട് ബെനഫിറ്റ് കിട്ടിത്തുടങ്ങുമ്പോഴായിരിക്കും അവർ വല്യ വല്യ വർക്കുകളിലോട്ടൊക്കെ ചെയ്യുന്നത് ഇപ്പം മുട്ടക്കച്ചവടം നടത്താം വേണമെങ്കിൽ രണ്ട് ഒരഞ്ചാറ് കോഴികളെയൊക്കെ ഒരു വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ അഞ്ചാറ് കോഴികളെ വളർത്തിയിട്ട് മുട്ടക്കച്ചവടം ചെയ്യാം അതുപോലെത്തന്നെ

അങ്ങനെയൊക്കെയാകുമ്പം നമുക്കുള്ള നമ്മളുടെ വീട്ടിലേക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണതൊക്കെ അതുപോലെത്തന്നെ ചെറിയ സംരംഭങ്ങളാണങ്കിൽ മാലയും കമ്മൽ ഒക്കെ ഉണ്ടാക്കാനറിയുന്ന ആൾക്കാർക്കാണങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റും അത് അറിയാവുന്നവരാണങ്കിൽ അവർക്ക് കൂടുതലായിട്ടിതിനകത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും അറിയാത്തവരാണങ്കിലവർ പഠിച്ച് വരുന്നതേയുളളൂ പക്ഷേ അവരും നേട്ടങ്ങൾ കൈവരിക്കും അവർക്ക് ഒരുപാട് സമയം എടുക്കുമെന്നു മാത്രം ഇപ്പോൾ സ്റ്റിച്ചിങ്ങറിയാവുന്നവരാണെങ്കിൽ ഒരാൾ വീട്ടിൽത്തന്നെ ഇരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തയ്ക്കാൻ പഠിക്കുന്നവർ ബാക്കിയുള്ളവർക്കും കൂടെ തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കും അതൊരു വരുമാനമായിട്ട് കിട്ടുന്നൊരു നേട്ടമാണതൊക്കെ അവർക്ക് വീടുകളിൽ നിന്ന് വീട്ടിലെ ജോലികൾ ചെയ്തതിന് ശേഷം അവർക്ക് അവരുടേതായൊരു ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യാം അങ്ങനെ ഒരുപാട് ചെറുകിട സംരഭങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്